നമുക്ക് ഇന്ന് ഇന്നത്തെ നമ്മുടെ ഇതിലെന്ന് പറയുമ്പോത്തേക്കും വിദ്യാഭാസ സംവിധാനം ഏകദേശം നല്ല രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ഇപ്പോൾ നഗരങ്ങളായാൽ തന്നെയും നമുക്ക് കുട്ടികൾക്ക് ഇന്നത്തെ വിദ്യാഭ്യാസമെന്ന് പറയുന്നത് നിർബന്ധിത വിദ്യാഭ്യാസമായത് കൊണ്ട് തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് എല്ലാവർക്കും തന്നെ വിദ്യാഭ്യാസം ഇന്ന് ലഭിക്കുന്നുണ്ട് ലഭിക്കാണ്ട് ഇരിക്കുന്നില്ല എന്നിരുന്നാലും ഗ്രാമ പ്രദേശങ്ങളിൽ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കുറച്ചു സൗകര്യ കുറവുകളൊക്കെ ഉണ്ടാകാറുണ്ട് എങ്കിലും എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ടെങ്കിലും നമുക്ക് അത് ഈ തന്നെ നമുക്ക് കൂടുതൽ മറ്റു കോഴ്സ്കൾ ഇപ്പോൾ കൂടുതൽ വേറെ നമുക്ക് ഉയർന്ന കോഴ്സുകൾ കോഴ്സുകൾ തെരഞ്ഞെടുക്കാൻ ആയാലും എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ചില സമയത്തെങ്കിലും വരാറുണ്ട് എല്ലാവർക്കും അപ്പോൾ നമുക്ക് അതിനെ ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടുതൽ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് സാധിക്കണം ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് കുട്ടികളെ ഇപ്പോൾ ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് അറിഞ്ഞു കൂടാ എന്താണ് ഇപ്പോൾ ഇപ്പോൾ അടിസ്ഥാന അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അതിന് അത് മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ നമുക്ക് ഗവൺമെൻ്റിൻ്റെ ഇതിൽ ആയാലും നമുക്ക് ആസൂത്രണം ചെയ്യാവുന്നതേ ഉള്ളൂ പാഠഭാഗം മാത്രം പഠിച്ചു പോകാണ്ട് മറ്റു കാര്യങ്ങൾ കൂടെ അറിയുന്ന രീതിയിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൂട കുട്ടികൾക്ക് ആവശ്യമാണ് അപ്പം അത്കൂടെ അറിയുന്ന രീതിയിൽ ഒള്ള ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്യാം കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാനായിട്ട് സാധിക്കും ഗ്രാമ പ്രദേശങ്ങളിൽ ആയാൽ തന്നെയും ഇപ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസത്തെ കൂടാതെ തന്നെ ട്യൂഷൻ മറ്റു എക്സ്ട്രാ എക്സ്ട്രാ ഗൈഡൻസ് അതൊക്കെ കുട്ടികളെ ചെയ്യിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എന്താണ് അതിന് വേണ്ടിയിട്ട് അതുപോലെ ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും കൂടെ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം അതിന് ആവശ്യമായിട്ട് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള മറ്റു സൗകര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും കൂടുതൽ എന്താണ് ഇപ്പോൾ പണം പണം പൈസയുടെ ഇതിൽ ആണെങ്കിലും മറ്റു പഠന പഠന സാമഗ്രികളായാലും ഏത് തരത്തിലാണെങ്കിലും നമുക്ക് അതൊക്കെ കുട്ടികൾക്ക് അവൈലബിൾ ആക്കാനായിട്ട് കുറച്ചു കൂടി സാധിക്കും അതിലുടെ കുട്ടികളുടെ നമുക്ക് ഗ്രാമങ്ങളിലെ പ്രദേശങ്ങളുടെ കുട്ടികളെയും കൂടെ കുറച്ചു കൂടെ ഉന്നത നിലയിലേക്ക് കൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ പുറത്ത് ഇപ്പോൾ നഗരങ്ങളിലെ നഗരങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ സിറ്റി ഉള്ള കുട്ടികളായിരിക്കും കൂടുതൽ എജ്യൂക്കേഷൻ കൂടുതലായിട്ട് അവർ എന്താണ് മുൻ മുന്നിലേക്ക് വരുന്നത് നമ്മൾ ഇപ്പം കൂടുതലായിട്ട് കാണുന്ന ഗ്രാമങ്ങളിൽ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പഴത്തെ ഇതിൽ ഇല്ല എങ്കിലും ചില സ്ഥലങ്ങളിൽ എങ്കിലും നമുക്ക് കാണാൻ പറ്റും എന്താണ് വിദ്യാഭ്യാസം നിർത്തിയിട്ട് മറ്റു കാര്യങ്ങൾ മറ്റ് ഇപ്പോൾ കല്യാണമായാലും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതലായിട്ട് മറ്റു കോഴ്സുകളും എല്ലാം അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും ഒരു ഗൈഡൻസ് കൊടുക്കാം കൂടുതൽ അവർക്ക് എന്താണ് വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് ഒരു ഗൈഡൻസ് കുട്ടികൾക്ക് നൽകാൻ പറ്റും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ കൂടുതലായിട്ട് ഗ്രാമ പ്രദേശങ്ങളിൽ ആയാലും നമുക്ക് വിദ്യാഭ്യാസത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ ഗവൺമെൻ്റിനെ ആ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലൂടെ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും